ഗ്യാസ് ഓഫീസല്ലേ ആ ഗ്യാസ് എങ്ങനെ എങ്ങനത് ഉപയോഗിക്കും ഉപയോഗിക്കൽ ഗ്യാസ് വെച്ചിട്ട് ലീക്കോ ലീ ആ ലീക്കൊന്നുമില്ല ഇതെങ്ങനെ സുരക്ഷിതമായിട്ട്

പിന്നെ ആ അ ആ

പിന്നെ

ആ ആ വെച്ചഴിഞ്ഞല്ലേ അപ്പം ആ അപ്പോൾ കുട്ടികളൊന്നും ഇല്ല അങ്ങനെത്തന്നെ ഒക്കെ ചെയ്യൽ തുറസായ സ്ഥലത്ത് തന്നാണ് ഇരിക്കുന്നത് അപ്പം കുട്ടികളൊന്നുമില്ല അങ്ങനെ ചെറിയ കൂട്ട് മുതിർന്ന ആൾക്കാരെന്നെ ഉള്ളു ആ പിന്നെ ആ ആ വെക്കട്ടെന്നാൽ ശരി ഭർത്താവും മകനും ഇതൊക്കെ തന്നെയുള്ളു ഇല്ലല്ലാ ഞാനേന്നെ ഉള്ളു ഉപയോഗിക്കണത് ഞാൻ തന്നെ ഉള്ളു ഉപയോഗിക്കൽ ഗ്യാസ് ഇങ്ങനെ ഓൺ ആക്കിയാൽ ഓഫാക്കി വെക്കും ഒക്കെ ചെയ്യും ആ ആയിക്കോട്ടെ ആ എന്നാൽ ശരി